ഒരു ദിവസം ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടെ ഒരു യാത്ര പോയി പോയ സമയത്ത് ഞങ്ങൾ ബീച്ചിൽ പോയപ്പം ബീച്ചിൽ നിന്ന് ചെറിയ ശംഖുകളും അതുപോലെ കല്ലുകളൊക്കെ ശേഖരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് എല്ലാവരും ബീച്ച് കണ്ടപ്പം വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തപ്പം ആ സമയത്ത് ഞാൻ അതിൽ ഈ ശംഖും കല്ലൊക്കെ തപ്പി നടന്ന് ഞാൻ ഇങ്ങനെ നടന്ന് നടന്നൊക്കെ കുറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എനിക്ക് പല കളറിലുള്ള പല തരത്തിലുള്ള പല വലിപ്പത്തിലുള്ള ശംഖുകളും കല്ലുകളൊക്കെ കിട്ടിയ ആ സമയത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റിൽ ഞാനിങ്ങനെ നോക്കി നോക്കി നടന്ന് തപ്പിത്തപ്പി പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും ബീച്ചിൽ ചാടുകയും വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ മാത്രം ഇങ്ങനെ തപ്പിത്തപ്പി നടന്നു അപ്പം എല്ലാവരും കയറി വന്ന ആ സമയത്ത് എന്നെ കണ്ടില്ല അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ ബീച്ചിൻ്റെ ഇതിൽക്കൂടെ ഇങ്ങനെ നടന്ന് ഈ കല്ലുകളൊക്കെ പെറുക്കുന്നവരുണ്ട് അവർ കുറേ നേരം എന്നെ ശ്രദ്ധിച്ചു പക്ഷെ എങ്കിലും ഞാനവരെ കാണുന്നില്ല ഞാനിത് കൂടുതൽ ശേഖരിക്കുക എന്ന ഒരു ത്വരയോടുകൂടി ഞാൻ അതിലോട്ട് കൂടുതലായിട്ട് മുഴുകി അങ്ങനെ ഞാനത് തപ്പിപ്പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആണെങ്കിൽ അവരെല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് അവരെന്നെ വിളിച്ച് വന്നിട്ട് ഞാനും അപ്പം ഈ കല്ലുകളെല്ലാമായിട്ട് ഓടിവന്ന് വണ്ടിയിൽ കയറിയ ആ സമയത്താണെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു വലിയ രസകരമായ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി അതുപോലെതന്നെ പിന്നെ ഒരു ദിവസം ഞങ്ങൾ പാർക്കിൽ പോയപ്പോൾ എല്ലാവരും ആണെങ്കിൽ റൈഡിലൊക്കെ കയറി ഞാനാണെങ്കിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം കണ്ടിങ്ങനെ നടന്ന് ഞാൻ ഒന്നിലും കയറിയില്ല പിന്നെ മരണക്കിണർ എന്ന് പറയണ ഒരു സംഭവമുണ്ടായി അതിൽ എല്ലാവരും തന്നെ കയറി പക്ഷെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഞാൻ കയറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെ പറഞ്ഞിട്ട് എന്നെ വീട്ടുകാർ കൂടുതൽ കളിയാക്കുകയും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് കസിൻസൊക്കെയാണെങ്കിൽ എന്നെ കളിയാക്കുകയും അവർ കളിയാക്കി നല്ല രീതിയിൽ ചിരിക്കുകയും എന്നെ അവിടെ ഇട്ട് കളിയാക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി എങ്കിൽത്തന്നെയും രസകരം അവർക്ക് രസകരമായിരുന്നു പക്ഷേ എങ്കിലും എനിക്കത് ചെറുതായിട്ടൊന്ന് വിഷമകരമായി എങ്കിൽത്തന്നെ നമ്മൾ അതപ്പോൾ തന്നെ വിട്ടു ആ നേരത്തേക്കുള്ള വിഷമം മാത്രമേ എന്നാൽ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പം നമ്മളിങ്ങനെ എല്ലാരും കൂടെ ഒന്നിച്ച് നമ്മളെ കളിയാക്കിയപ്പോൾ എന്നെ കളിയാക്കിപ്പോൾ എനിക്കത് വളരെയധികമായി ഹേർട്ട് ആകുകയും എനിക്കത് വിഷമം വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് എൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ പല പല ഇൻസിഡൻസും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന പെട്ടെന്ന് എല്ലാവരും കൂടെനിന്ന് ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ അവരുടെകൂടെ ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നൊക്കെ തന്നെ നമുക്കും വളരെയധികം ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽത്തന്നെ നമ്മൾ ചിരിച്ചുകഴിഞ്ഞാൽ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമാണ് അത് മറ്റുള്ളവർ മനസ്സിലാക്കില്ല കാരണം നമ്മൾ നം അവർക്കത് രസമാണെങ്കിൽ നമ്മൾക്കതൊരു വലിയ സംഭവമായിരിക്കും പക്ഷേ അവർക്കതൊരു രസമായിരിക്കും പക്ഷെ നമുക്കത് വലിയ സംഭവമാണ് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളെന്തു കാര്യം ചെയ്യുന്നു നമ്മളെന്തു കാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ട് പക്ഷെ അവർക്കറിയുക നമ്മളത് ശേഖരിക്കുമ്പോൾ നമുക്കതൊരു ആ ഓർമ്മ നമ്മൾക്ക് നമ്മൾ ആ സ്ഥലത്തുപോയി ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ശേഖരിക്കുന്നതും നമ്മൾ അതിൻ്റെയൊക്കെ ചിത്രം പകർത്തുന്നതൊക്കെ നമ്മളതിൻ്റെ ഓർമ്മയ്ക്കുവേണ്ടി പക്ഷെ മറ്റുള്ളവർ ആണെങ്കിൽ അത് എഞ്ചോയ് ചെയ്യുകയും പിന്നത്തേക്കുള്ളതൊന്നും അവർ ഓർക്കുന്നില്ല നമ്മളതിപ്പം അപ്പോഴും വേണം നമുക്ക് പിന്നേയും വേണം എന്നുള്ളൊരിതിലാണ് നമ്മൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നത് ശരി അന്നു ഞാൻ ബീച്ചിൽ പോയപ്പോൾ കല്ലൊക്കെ ശേഖരിച്ച് ശംഖൊക്കെ ശേഖരിച്ചൊരു അക്വേറിയത്തിലിട്ടു വെച്ചിട്ടുണ്ട്